ആ ഹലോ നമസ്കാരം പ്രിൻസിപ്പൾ സാറല്ലേ ആ ഞാനഭിജിത്തിൻ്റെ പപ്പയാണ് സാറേ അഭിജിത്തിൻ്റെ പപ്പയാണെൻ്റെ പേര് സുരേഷെന്നാണേ ആ ആ സാറേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാം കുട്ടികളെല്ലാം കൂട്ടി ഒരു ഫാമിലി ടൂർ ഡെൽഹിക്ക് പോകാൻ വേണ്ടിയിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ടേ ഹലോ അ ഡെൽഹിക്ക് പോകാൻ വേണ്ടിയിട്ടിങ്ങനാഗ്രഹിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നാല് ദിവസം ത്തെ ഒരു ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ അപ്പോഴാണെങ്കിൽ അഭിജിത്തിനെ ആണെങ്കിൽ ടൂറിനു കൊണ്ടു പോകാനായിട്ട് അനുവാദം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് സാറേ ഞങ്ങൾ ഗവൺമെൻ്റ് ജോലിക്കാരാണെന്നറിയാമല്ലോ ഞങ്ങൾക്കിപ്പോഴാണ് അവധിയുള്ളത് അപ്പോഴാണെങ്കിൽ ഈ സമയത്ത് പിന്നിപ്പം നല്ല കാലാവസ്ഥയെക്കെയാണ് അതുകൊണ്ട് ഇപ്പോൾ പോകാമെന്നു കരുതുകയായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞിതു പോലെ കുട്ടികളുടെ പഠനമാണ് പ്രധ പ്രധാനപ്പെട്ടത് അപ്പോഴാണെങ്കിൽ കുഴപ്പം അവരുടെ പ്രധാനപ്പെട്ട ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്താണ് അ തീർച്ഛയായിട്ടും ആ തീർച്ചയായിട്ടും സാറേ ഞാനത്രയും ഗ ഗൗരവപരമായിട്ട് ചിന്തിച്ചില്ല അപ്പോൾ സ്കൂളിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരവസരത്തിലോട്ടിത് മാറ്റിവെച്ചോളാം അ അവരുടെ പഠനമൊക്കെയല്ലേ പ്രധാനം ആ തീർച്ച തീർച്ചയായിട്ടും സാറേ വലിയ വലിയ നിർദ്ദേശം തന്നതിന് നന്ദിയുണ്ട് ഞങ്ങൾ ഡൽഹിയിൽ പോകാനാണുദ്ദേശിക്കുന്നത് ഡൽഹിയിൽ പോകാനായിട്ട് തീർച്ചയായിട്ടും സാറേ നല്ല ഉപദേശം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ മറ്റൊരവസരത്തിൽ പൊയ്ക്കോളാം ശരി സാറേ അപ്പം ശരി